ആരോഗ്യ പരിരക്ഷ ആനുകൂല്യങ്ങൾ നൽകുന്ന സർക്കാരിന് കുറേ പദ്ധതികളുണ്ട് അതിലൊരു പദ്ധതിയാണ് ഇ എസ് ഐ സി എന്നൊക്കെ പറഞ്ഞ പദ്ധതി അതിപ്പോൾ എന്തെങ്കിലും വലിയ അസുഖമുള്ളവർ ആണെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് മരുന്ന് കഴിക്കുന്നവരൊക്കെ ആണെങ്കിലോ ഈ ശ്വാസംമുട്ട് സ്ട്രോക്ക് പോലുള്ള എന്തെങ്കിലുമൊക്കെ അസുഖം ഉള്ളവരാണെങ്കിൽ അവർക്ക് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് മരുന്ന് കഴിക്കണം അതിനൊക്കെ മരുന്നും മേടിക്കാൻ തന്നെ ഒരു നല്ലൊരു സംഖ്യ തന്നെ വേണം അങ്ങനെ പൈസ ഇല്ലാത്തവരാണെങ്കിൽ പൈസ ഇല്ലാത്തവർക്ക് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഗവൺമെൻറ് സർക്കാരിങ്ങനെ പൈസ മരുന്നുകളൊക്കെ സൗജന്യമായിട്ട് ചെയ്യുന്ന് കൊടുക്കുന്നൊക്കെ ഉണ്ട് അങ്ങനത്തെ സംഘടനയാണ് ഈ ഇ എസ് ഐ സി എന്നൊക്കെ പറഞ്ഞ സംഘടന സംഘടനകൾ പിന്നെ പാലിയേറ്റീവുകാരുണ്ട് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അങ്ങനെയൊക്കെ മക്കൾ ഇല്ലാത്തവരും മക്കൾ നോക്കാത്തവരും ഒക്കെ ആയ വൃദ്ധ വൃദ്ധകൾക്കും ആ ഈ പ്രായമായ ആൾക്കാർക്കൊക്കെ ഈയൊരു പദ്ധതി നല്ലൊരു ഉപകാരപ്രദമാണ് കുറച്ച് പിന്നെ സ് കാര്യങ്ങൾ അതിനു വേണ്ടി കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് എന്നാലും ഈയൊരു പദ്ധതി എല്ലാവർക്കും നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്യുന്നത്